നീണ്ട നീന്തൽ പരിശീലനത്തിലും വ്യായാമത്തിലും ഊർജവും ശ്രദ്ധയും നിലനിർത്താനുള്ള ചില വഴികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഊർജം നിലനിർത്തുന്നത് ഈ നീന്തൽ എന്ന് പറയുമ്പോൾ നീന്താൻ പോകുക അല്ലെങ്കിൽ നീന്തല് പഠിക്കുക ഇത് പറയുമ്പോള് എൻ്റെ എന്താ പറയുക ജീവിതവുമായിട്ട് ഭയങ്കര ഒരു കണക്റ്റഡാണ് നമ്മളെല്ലാം ഗ്രാമത്തില് ജീവിക്കുന്ന ആൾക്കാരാണ് അത്യാവശ്യം ഈ അമ്പലക്കുളങ്ങളും അതേപോലെ വയലുകളും ഈ വയലേ വയലിൻ്റെ നടുക്കുള്ള കുളങ്ങളും പാടങ്ങള് തോടുകള് അതേപോലെ ഇതെല്ലാം ചെറുപ്പകാലത്ത് നമ്മള് കാണുന്നതല്ലേ ഇനി നീന്തല് പഠിക്കുക എന്നു പറയാന് നീന്തലറിയില്ലേ ഒരുപാട് ആൾക്കാര് പോകും നീന്തും നീന്തിയിട്ട് വന്നിട്ട് അവര് വിശേഷങ്ങള് പറയും ഇങ്ങനെയുള്ള ഒരുപാട് അത് കണ്ടു വളരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതില് പക്ഷേ എന്നെ കൊണ്ടു പോകാനോ പഠിപ്പിക്കാനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കാരണം വെള്ളത്തില് പോകരുത് വെള്ളം കാണരുത് വെള്ളത്തില് കളിക്കരുത് എന്നെല്ലാം പറയും കാലമിങ്ങനെ കുറേ കടന്നു പോയപ്പോഴാണ് നമ്മുടെ ഒരാഗ്രഹം അല്ലെങ്കിൽ അറിയാത്ത ഒരു വയസ്സാ ആ ഒരു പ്രായത്തില് ഞാനും പോയി നീന്തല് പഠിക്കാൻ കോളേജ് കോളേജല്ല സ്കൂൾ ടൈമിലാണ് പോകുന്നത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അന്നേ ഞാൻ വണ്ടി ഓടിക്കും അതുകൊണ്ട് വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു സ്കൂളില് പഠിക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓടിച്ചു അന്ന് ഈ പറയുന്നത്ര പ്രശ്നമൊന്നുമില്ല ഇത് ഇവര് നീന്തല് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു വണ്ടിയില് കയറി നമ്മളുടെ ഇവിടെ പണകളുണ്ട് കല്ലെടുക്കുന്ന പണ പണ എത്തുമ്പോഴത്തേക്കും ഇവര് വണ്ടി ഞാൻ പാർക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഇവര് കുളത്തിലുണ്ടാകും എന്നിട്ട് ഒരു പാറ കഷ്ണം പിടിച്ചിട്ട് എന്നോട് പറയും കാല് രണ്ടും അടിക്കുക കൈ രണ്ടും അടിക്കുക അങ്ങനെയാണ് നീന്തല് പഠിക്കുക എന്ന് വർഷങ്ങള് കടന്നുപോയി നമ്മളുടെ ആഗ്രഹം തീവ്രമായി സമയത്ത് നല്ലൊരു ടീമിനെ കിട്ടി അപ്പോള് അവര് അവരോട് ഞാൻ പറഞ്ഞു നീന്തല് പഠിക്കണം പക്ഷേ അറിയില്ല അവര് പറഞ്ഞു അതിനെന്താണ് അത് വലിയ സംഭവമൊന്നുമല്ല വാ പഠിപ്പിക്കാം പഠിക്കാമെന്ന് പറഞ്ഞു അവര്ക്കൊപ്പം പോയി അത് എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ നടുവിലുള്ള തെളിഞ്ഞ വെള്ളമുള്ള ഒരു കുളമാണ് കുളത്തില് പോയി അവര് ഒരുപാട് പേരുണ്ട് ഒരാള് വെള്ളത്തിൻ്റെ അടിയില് നീന്തുന്നത് കാണാം കാരണം തെളിഞ്ഞ വെള്ളമാണ് ചില്ല് പോലെയുള്ള വെള്ളം എന്ന് പറയും നമ്മളെ നാട്ടില് അപ്പോള് ഇത് കാണാം അയാള് ഈ കല്ല് പിടിച്ചിട്ട് കല്ല് പിടിച്ച് കല്ല് പിടിച്ച് താഴെ അടിയില് ഫുള് കല്ലാണ് ആ കല്ല് പിടിച്ച് പോകുന്നത് ഇങ്ങനെ കാണാം വേറെ ഒരാള് ഈ കുളത്തിൻ്റെ നടുവില് ഇങ്ങനെ മലര്ന്നുകിടക്കും അനങ്ങാണ്ട് കിടക്കും വേറെ ഒരുപാട് പേര് മേലെന്നു വന്നിട്ട് ഇപ്പോള് ഓടി വന്നിട്ട് ഒറ്റ തുള്ളല് വെള്ളത്തിലേക്ക് പിന്നെ കുറേ ടീംസ് അത് ഒരാള് എന്ന് പറഞ്ഞാല് ഇങ്ങനെ പല തരം നീന്തലുകളാണ് നമ്മളിന്ന് കാണുന്നത് പിന്നെ ഒരാള് ഇങ്ങനെ വെള്ളം അറിയാതെ വെള്ളത്തിലൂടെ നീന്തുന്നു ഇങ്ങനെ പല തരത്തിലുള്ള നീന്തല് ഞാൻ അന്നു കണ്ടു എനിക്കൊന്ന് ഇത് പഠിക്കാം പഠിച്ചാൽ എനിക്കും ഇതേപോലെ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനിറങ്ങി ആദ്യം ഇതു തന്നെയാന്ന് അവസ്ഥ പാറ പിടിച്ച് കാലടിച്ചു പിറ്റേ ദിവസം പോയി അത്യാവശ്യം ഒന്ന് അനങ്ങി മുങ്ങി വെള്ളം കുടിച്ചു വീണ്ടും വന്നു പിന്നെയും പോയി പിന്നെയും പോയി പോയി പോയി പോയി പോയി ആ ഒരു മഴ സീസൺ കഴിയുമ്പോള്ത്തന്നെ അത്യാവശ്യം നീന്തല് പഠിച്ചു പിന്നങ്ങോട്ട് മഴ സീ മഴ പെയ്തു എന്ന് പറഞ്ഞാല് നമ്മള് കുളത്തിലാണ് എല്ലാവരുമുണ്ടാകും അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നീന്തലും പഠിച്ചു ഒരുവിധം പഠിച്ചു എന്നല്ല ഒരുവിധം മനസ്സിലാക്കി അങ്ങനെ അങ്ങനെ അങ്ങനെ അപ്പം ഇതിൻ്റെ ഗുണങ്ങള് മനസ്സിലായി ആരോഗ്യ ആരോഗ്യത്തിനുള്ള നമുക്ക് ഈ കിട്ടുന്ന ഗുണങ്ങള് കാര്യങ്ങള് എല്ലാം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ നീന്തണം എന്തിന് നീന്തണം ഏത് രീതിയില് നീന്തിയാല് ഏത് രീതിയിലാകും കാരണം ഒന്ന് മുങ്ങി എഴുന്നേറ്റാല് നീന്തണമെന്നല്ല ഒന്ന് കുളത്തിൽ പോയി മുങ്ങിയാല് നമ്മളുടെ ശരീരം തന്നെ നമുക്ക് മനസ്സിലാക്കി തരും നല്ല രീതിയില് മുടി വളരും പിന്നെ ശരീരത്തിലുള്ള ഉള്ള വേസ്റ്റ് കംപ്ലീറ്റ് ക്ളീയറായി വരും വയറ് കുറയും നമുക്ക് ശ്വാസം ഈ കിതപ്പ് എല്ലാം മാറും അങ്ങനെയുള്ള ഒരുപാട് ഗുണം ഉണ്ട് ഇനി ഒരു വ്യക്തി സൈക്കിള് ചവിട്ടുന്നതും നീന്തുന്നതും വെച്ചുനോക്കുകയാണെങ്കിൽ ഇതു രണ്ടുമാണ് ഏറ്റവും വലിയ എക്സർസൈസ് കാരണം ആ സൈക്കിളിങ്ങിലൂടെയും നമ്മളുടെ കാലും കൈയും ഇതേ പോലെ ആകും അതിനെക്കാളും പവറിലാണ് നീന്തല് എനിക്ക് സൈക്കിളിങ്ങാണോ ഇഷ്ടം നീന്തലാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നീന്തലേ പറയൂ കാരണം എപ്പോള് മഴ പെയ്യുന്നുവോ അപ്പോള് നമ്മള് കുളത്തിലാണ് പക്ഷേ ഈ നമ്മള് ഇപ്പോള് ഇങ്ങനെ തോന്നും ഈ മഴ ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും ചെയ്യുക അതിനും പരിഹാരമായിട്ട് നമ്മളുടെ നാട്ടില് സ്വിമ്മിംഗ് പൂളുകൾ വന്നു സ്വിമ്മിംഗ് പൂളിലാണ് പിന്നെ ഈ വേനൽ കാലത്തെല്ലാം നമ്മള് സ്വിമ്മിംഗ് പൂളിലും മഴക്കാലത്തെല്ലാം കുളം തോട് വയല് അങ്ങനെയുമാണ്

സ്വിമ്മിംഗ് പൂളില് എന്ന് പറഞ്ഞാല് ഈ കുളത്തില് കുളിച്ചാല് ആ ഒരു ഫ്രഷ്നെസ്സ് കിട്ടില്ല എന്താണെന്നു പറഞ്ഞാല് അതിനകത്ത് വെള്ളത്തിന് ഈ രോഗങ്ങള് പകരാതിരിക്കാന് അലർജി ഉണ്ടാകാതിരിക്കാന് എല്ലാം ഒരുതരം കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് അത് സ്വിമ്മിംഗ് പൂളില്നിന്ന് എഴുന്നേറ്റവർക്ക് അറിയാം കുളിച്ച് എഴുന്നേല്ക്കുമ്പോള് മേലാസകലം ഒട്ടിപ്പിടിക്കും അതൊരു വല്ലാത്തൊരു ഒരവസ്ഥയാണ് അത് തന്നെ കുളത്തില്നിന്നാണ് ഈ കുളിച്ച് എണീക്കുന്നതാണെങ്കില് നമ്മളെ ശരീരം പ്രതിരോധിക്കും അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് മാക്സിമം നമ്മളെല്ലാം കുളത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തു നില്ക്കണയാണ് കാരണം നമ്മളെ ഒരു ടീം തന്നെ ഇതിനു വേണ്ടിയിട്ടുണ്ട് അങ്ങനെ വരെ പറയാം എത്ര പറഞ്ഞാലും തീരാത്ത ഇതാണ് നമ്മുടെ ഈ കുളം കുളവുമായിട്ടുള്ളത് കാരണം ഈ നീന്തലുമായിട്ട് ഉള്ളത് ഏറ്റവും കൂടുതല് ഊർജം നമുക്ക് കിട്ടുന്നത് നീന്തലിലൂടെയാണ് കേട്ടോ കാരണം ഒരു മടുപ്പ് അനുഭവപ്പെടുന്നില്ല കാരണം അത് ഓരോരോ കാരണം ഒരാളായിട്ടല്ല നീന്തുന്നത് ഒരുപാട് ഒരു ടീമായിട്ടാണ് പോകല് സ്വിമ്മിംഗ് അത് വല്ലാത്തൊരു അനുഭവമാണ് ഇങ്ങനെയുള്ള ഇത് ഇത് എന്താണ് പറയുന്നത് ഒരു കൂട്ടായ്മയല്ലേ ഒരു കൂട്ടായതാ ഒറ്റയ്ക്ക് പോയിട്ട് അധികം ആൾക്കാര് നീന്താറില്ല ഒന്നുകിൽ ഒന്നിൽ കൂടുതൽ പേരാണ് ഈ നീന്താൻ വേണ്ടി പോകുന്നത് ശരീരത്തിന് ഏറ്റവും കൂടുതല് ഫ്രഷ്നെസ് കിട്ടുന്നതും മൈൻഡ് എപ്പോഴും റിലാക്സ് ആകുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നീന്തലിലാണ്